എൻ്റെ നാട്ടിൽ ഒരുപാട് ചില്ലറയും ചില്ലറ വ്യാപാര വിപണികളുണ്ട് അത് പലചരക്കുകടകളായിട്ടും വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളായിട്ടും മറ്റും ഞാൻ കാണാറുണ്ട് മാത്രമല്ല കൂടാതെ മൊത്ത വ്യാപാര വ്യാപാര വിപണികളും ഉണ്ട് അടുത്തകാലത്തായി പലചരക്കുകളുടേയും പച്ചക്കറികളുടേയും വിലയിൽ എന്താണ് കൂടിയും കുറഞ്ഞുമുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് വിലകൾ കൂടിയ സമയങ്ങളും കുറഞ്ഞ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചില ചില സാഹചര്യങ്ങളിൽ അത് ദോശകരമായിട്ടും ചില സമയങ്ങളിൽ അത് ഗുണകരമായിട്ടും ബാധിക്കാറുണ്ട് നമുക്കാവശ്യമുള്ള സമയങ്ങളിൽ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും സാധിക്കാറുണ്ട് പക്ഷെ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ ഗുണമേന്മയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതായിട്ടും കാണാറുണ്ട് ഓൺലൈൻ ഷോപ്പിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം ഒരു വസ്ത്രം ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിനെ മെറ്റീരിയൽ അതിൻ്റെ കോളിറ്റി

ഗുണമേന്മ വച്ച് പുലർത്തണം എന്നില്ല അതിന് ഒരുപാട് വ്യത്യാസങ്ങളും മാറ്റങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടേക്കാം അത്തരത്തിൽ ഓൺലൈൻ ഓൺലൈനായിട്ട് ഷോപ്പിങ് ചെയ്യുന്ന സമയത്ത് നമ്മക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരേ കൂടുതലാണ് പോരായ്മകൾ കൂടാതെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് ധാരാളം നല്ല വശങ്ങളുമുണ്ട് എന്താണെന്നു വച്ചാൽ ഓൺലൈൻ ഷോപ്പിങ്ങ് നമ്മൾക്ക് നമുക്കാവിശ്യമുള്ള സമയത്ത് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നതാണ് അത് ഒരു വലിയൊരു ഉപയോഗം വലിയ ഒരു ഗുണമേന്മയാണ് കൂടാതെ നമുക്ക് സമയം ലാഭിക്കാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണ് എന്ത് ഓൺലൈൻ ഷോപ്പിങ് എന്ന് പറയുന്നത്